ഞാൻ ഒരു ബിരിയാണി ഓഡർ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ഒരു മണിക്കൂർ മുന്നേ ഓഡർ ചെയ്തതാണ് ഞാൻ കുറേ നേരമായി കാത്തിരിക്കുകയാണ് ഇതുവരെ വന്നിട്ടില്ല പിന്നെ ഞാൻ ഭക്ഷണം ഓഡർ ചെയ്ത ആപ്പ് തുറന്ന് നോക്കി അതിലും കാണിക്കുന്നത് ആയിട്ടില്ല എന്നാണ് ഞാൻ മക്കളോടും ഭർത്താവിനോടും ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ് എപ്പോള് വരുമെന്ന് അറിയൂല്ല